ഹലോ സൂര്യയെ ഞാനാണെ എടി നാളെ എനിക്ക് എക്സാമുണ്ട് ഏഴരകയ്ക്കാണ് എക്സാമ് അപ്പോൾ അതിന് പോകാനായിട്ട് ആയിരുന്നു വീട്ടിലാണെങ്കിൽ അച്ചാച്ചന് വയ്യ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം അപ്പം വയാതിരിക്കുകയാണ് ഡ്രൈവിംങ്ങൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഊബർ ഓലെയില്ലേ നീ മിക്കപ്പോഴും അതിനല്ലേ അതിലല്ലേ ട്രാവൽ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നാളെ ഊബർ എടുക്കണോ ഓലയെടുക്കണോ എന്നുള്ളത് എങ്ങനെ സേഫായിരിക്കുമോ റൈഡിങ്ങൊക്കെ നമ്മള് പോയാൽ എനിക്ക് ഏഴരയ്ക്കാണ് അവിടെ ചെല്ലണ്ടത് എക്സാം അപ്പം കറക്റ്റ് സമയത്ത് അവര് എത്തിക്കുവായിരിക്കുമോ പിന്നെ നമുക്ക് സേഫായിരിക്കുമല്ലോ അല്ലേ കുഴപ്പം ഒന്നും കാണത്തില്ലലോ റേറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഓലയിലാണോ അതോ ഊബറിനാണോ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത് നീ ഒന്ന് നോക്കാമോ കറക്റ്റായിട്ട് ഒന്ന് എനിക്കൊന്ന് ഇപ്പോൾ തന്നെ വിളികുവോ അല്ലെങ്കിൽ ഇതിന് റിപ്ലേ തരുവോ ചെയ്യണേ ഒന്ന് മറക്കരുത് കേട്ടോ പിന്നെ ഈ ഊബറും ഓലെയും രണ്ടും രണ്ട് എങ്ങനെയാണ് പെയ്മെൻറ്റൊക്കെ വരുന്നത് എങ്ങനയാന്ന് അറിയാവോ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ അത് കൂടെ ഒന്ന് പറയണേ കേട്ടോ കറക്റ്റായിട്ട് എന്നിട്ട് എനിക്കതൊന്ന് ഡൌൺലോഡ് ചെയ്തിട്ട് ഏതാന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് ചെയ്യാനായിട്ടായിരുന്നു